നിരവധി സാംസ്കാരിക പാരമ്പര്യങ്ങളും ആചാരങ്ങളേയും കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു മുഖ്യമായിട്ടുള്ള സാംസ്കാരിക കലകളിലൊക്കെ ഉൾപ്പെടുന്ന ഒന്നാണ് തിരുവാതിര തെയ്യം പടയണി എന്നീ എന്നീ എന്നിവ പോലുള്ള കലാരൂപങ്ങളെല്ലാം നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ വരച്ചു കാട്ടുന്നത് തന്നെയാണ് പിന്നെ അതില്ലാതെ തന്നെ ആറന്മുള വള്ളം കളി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മത്സര ഇനം എന്നുതന്നെ പറയാം അതായത് ആറന്മുളയിൽ നമ്മൾ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സരയിനമാണ് ആറന്മുള വള്ളം കളി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരേപോലെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണത് അതായത് ഒരു പ്രത്യേകം ആളുകൾ അല്ല കുറച്ച് ആളുകൾ ചേർന്ന് വള്ളം പല വള്ളങ്ങളിലായിട്ട് ആ വള്ളങ്ങൾക്ക് തന്നെ പേരുണ്ട് ഓരോ പേ വള്ളത്തിനോരോ പേര് തന്നെയുണ്ട് പ്രശസ്തമായ അവർ അതൊരു അതിൻ്റെ ആവേശത്തോടെയും അത്രയും സന്തോഷത്തോടെയും ഊർജത്തോടെയും കൂടി അവർ ആ വള്ളം അതായത് ഒരു മത്സരയിനമാണെങ്കിൽ കൂടെ അത് നമ്മുടെ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കുന്ന ഒരു മുഖ്യ ഒരു പ പങ്ക് വഹിക്കുന്നുണ്ട് ആറന്മുള വള്ളം കളിക്ക് അതുമാതിരി തന്നെ നമ്മുടെ ഒരു പാരമ്പര്യ ഒരു കലാരൂപത്തിൽ പെടുന്ന ഒന്നാണ് തിരുവാതിര എന്ന് പറയുന്നത് അതായത് ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് നമ്മുടെ കേരളത്തിൻ്റെ തനതായ വേഷമായ കസവുസാരി നമ്മുടെ കേരളാ സാരിയുടുത്ത് നമ്മൾ തലയിൽ തുളസിക്കതിർ ചൂടി നിലവിളക്ക് കൊളുത്തി വെച്ച് വട്ടത്തിൽ നിന്നുകൊണ്ട് അവർ തന്നെ പാടി ക കളിക്കുന്ന ഒരു കലാരൂപമാണ് തിരുവാതിര നൃത്തം എന്ന് പറയുന്നത് അത് മാതിരി നമ്മൾ ആചാരങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട അതായത് ചില ക്ഷേത്രങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരാനുഷ്ഠാന കലയാണ് തെയ്യം എന്ന് പറയുന്നത് അത് മാതിരി തന്നെ മുടിയാട്ട് ഇതെല്ലാം നമ്മൾ കേരളത്തിൻ്റെ പാരമ്പര്യ ആചാരങ്ങളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ തന്നെയാണ്